ഇപ്പം വയനാട് ജില്ലയില് അതായത് പരിസ്ഥിതി സംരംഭങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കാരണം എന്ന് വെച്ചാല് ഇപ്പം നമ്മള് പല രീതിയിലുള്ള കൂട്ടായ്മ്കളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഇപ്പം മരം മുറിക്കുന്നതിനൊക്കെ എതിരായിട്ട് ഭയങ്കര രീതിയില് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മരം മുറിച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആണ് അതായത് വായു സഞ്ചാരം അതായത് അന്തരീക്ഷ മലിനീകരണം മഴ ലഭിക്കല് ഇതൊന്നും ഇപ്പം എന്താ പറയുക നല്ല രീതിയില് നടക്കുന്നില്ല കാരണം നമ്മളുടെ പൂർവികര് ഒക്കെ നല്ല രീതിയില് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പോളത്തെ തല മുറ എന്ന് വെച്ചാല് എല്ലാം വെട്ടി തെളിക്കല് അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് അപ്പം നമ്മള് തലമുറ എങ്ങനെ ആണോ ഉണ്ടായത് അതായത് ഓരോ മരം വെച്ചു പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ നല്ല രീതിയില് നമ്മുടെ നമ്മുടെ തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് കിട്ടിയ ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് കിട്ടാൻ പാടില്ല എന്നൊരു ചിന്താഗതി ആണ് നമ്മുടെ ഇപ്പോളത്തെ തല മുറകള് ചെയ്യുന്നത് അപ്പം പല രീതിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇപ്പം ഇത് സംഭവിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് ഇപ്പം മഴ പെയ്യേണ്ട ഒരു ടൈമില് നമുക്ക് ഇപ്പം നല്ല രീതിയില് ചൂടാണ് അപ്പം ഇതൊക്കെ നമ്മുടെ മനുഷ്യര് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്